വീടിൻ്റെ അടുത്തുനിന്ന് ഏഴാം മുക്കിൽ അപ്പുറത്താണുള്ള ബാങ്ക് ഗ്രാമീണ ബാങ്ക് അങ്ങനെ സഹകരണ ബാങ്ക് അങ്ങനത്തെ കുറേ ബാങ്ക് ഉണ്ട് അപ്പോൾ അവിടേയ്ക്ക് എത്തിപ്പെടാൻ എന്നു പറഞ്ഞാൽ പ്രായമായവർക്കും സുഖമില്ലാത്തവർക്കൊക്കെ കുറച്ച് പാടാണ് എങ്കിൽപ്പോലും ഏജൻ്റുമാരുണ്ട് അല്ലെങ്കിൽ മക്കൾ പോയിട്ടാണ് അല്ലെ എ ടി എം സൗകര്യം ഒക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അല്ലാത്തപക്ഷം എന്താ പറയുക ഏജന്റുമാർ ആയിട്ടാണ് വരല് അവർ വന്നിട്ട് എന്താ പറയുക ആ ഫണ്ട് എടുക്കാനാണെങ്കിലും കൊണ്ടുത്തരുന്നു അതേപോലെതന്നെ ഇപ്പം എ ടി എം കാർഡ് ആയിക്കോട്ടെ അതുപോലെ അവർക്കെന്തെങ്കിലും പെൻഷൻ തുക കിട്ടുന്നതായിക്കോട്ടെ എല്ലാം ഏജന്റുമാർ വഴിയാണ് എത്താറ് ഏജന്റുമാർ എന്താ പറയുക പെട്ടന്ന് കൊണ്ടുത്തരും കാരണം ബാങ്കിൽ കുറച്ച് അത്യാവശ്യം ഡിപ്പോസിറ്റ് ഉള്ളതാണെങ്കിൽപ്പോലും ഇല്ലാത്തതാണെങ്കിൽപ്പോലും ഏജന്റുമാർ നല്ല രീതിയിൽ എന്താ പറയുക പ്രായമായവരെയും എല്ലാവരെയും പരിഗണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പ്രായമായവർ അവരുടെ പെൻഷൻ തുകയെല്ലാം വരുന്നതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ ഇതായി പോകണമെങ്കിൽ ഈ തുകകൊണ്ടുതന്നെ വേണ്ടേ അപ്പം എന്താ പറയുക ഏജന്റുമാർക്ക് ഇങ്ങനെ പ്രായ വ്യത്യാസംഒന്നുമില്ല എന്താ പറയുക പ്രായത്തിൻ്റെ പരിഗണന കാണിക്കുന്നുണ്ട് എല്ലാവരും എന്താ പറയുക ഇങ്ങനെ പണം എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെല്പ്ഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്